നമ്മുടെ പ്രദേശത്ത് ഇപ്പോൾ ഏറ്റവും പൊതുവേ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സാധാരണ സാധാരണ അല്ല ഇപ്പം എല്ലാവരും അഭിമുകീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ആരോഗ്യപ്രശ്നങ്ങൾ പല രീതിയിലുള്ള ആരോഗ്യപ്രശ്നങ്ങൾ നമുക്ക് ഇവിടെ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികളായാലും വലിയ മുതിർന്ന ആൾക്കാരായാലും കൂടി ഇപ്പോൾ ഏറ്റവും കൂടുതൽ നേരിടുന്ന ത് ആരോഗ്യപ്രശ്നങ്ങൾ തന്നെയാണ് കാരണം ചിലപ്പോൾ അത് ഭക്ഷണ രീതിയിലൂടെ ആയിരിക്കാം പുറത്തുള്ള ഭക്ഷണം കഴിക്കുന്നത് വഴി നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകണം ഉദാഹരണം ഇപ്പം നമ്മുടെ ആ പ്രദേശത്തെ ഏറ്റവും കൂടുതൽ അഭിമുകീകരിക്കുന്ന നിരവധി ആരോഗ്യപ്രശ്നനങ്ങൾ അതിലൊന്ന് എടുത്തു പറയേണ്ട ഒന്ന് മഞ്ഞപ്പിത്തമാണ് മഞ്ഞപ്പിത്തം മഞ്ഞ പിത്തം ഏറ്റവും കൂടുതൽ കുട്ടികളിൽ ഇപ്പോൾ കണ്ടു വരുന്നുണ്ട് കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ റോഡ് സൈഡിൽ നിന്നുള്ള കരിമ്പു ജ്യൂസ് പിന്നെ കോലൈസ് ഇപ്പോഴുള്ള ഒന്നും ശുചീകരിച്ചിട്ടുള്ള വെള്ളത്തിലല്ല നമുക്കിതൊന്നും ആക്കിത്തരുന്നത് മലിനീകരിച്ച മലിനീകരമായ വെള്ളങ്ങളിൽ നിന്നാണ് അതൊക്കെ ജ്യൂസ് ഉണ്ടാക്കി തരുന്നത് നമ്മൾ ആരും ശ്രദ്ധിക്കുന്നില്ല നമ്മൾ അതിൻ്റെ സ്വാദ് കിട്ടുന്നതായിട്ട് നമ്മൾ ആടപ്പോയിട്ട് എല്ലാം കഴിക്കുന്നത് പക്ഷെ അത് വൃത്തിഹീനമായ പരിസരത്തു നിന്നല്ലേ ആക്കിയിട്ടെല്ലാം വരുമ്പോഴത്തേക്കുള്ള പൊതുവായിട്ടുള്ള ആരോഗ്യ പ്രശ്നം നമ്മൾ നേരിടേണ്ടി വരുന്നുണ്ട് മഞ്ഞപ്പിത്തമൊക്കെ അധികമായാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം കാരണം ഞങ്ങളുടെ ജീവൻ തന്നെ അപ അപകടത്തിലാക്കുന്ന ഒരു രോഗം കൂടിയാണ് മഞ്ഞപ്പിത്തം അത് ഒന്നാമത് വരുന്നത് വെള്ളത്തിൽ വെള്ളത്തിലൂടെയാണ് ഈ മഞ്ഞപ്പിത്തം പകരുന്നത് കാരണം നമ്മൾ ശുചിത്വമില്ലായ്മ ഒന്നാമത്തെ കാരണം ശുചിത്വമില്ലായ്മയാണ് കാരണം ഞങ്ങൾ ഇങ്ങനേ ഈ വേസ്റ്റൊക്കെ അവിടെയും ഇവിടെയൊക്കെ ചാടുന്നത് അത് അതുവഴി വെള്ളം കെട്ടിനിന്നിട്ടെല്ലാം ഉണ്ടാകും അതിൽ നിന്ന് കൊതുകളൊക്കെ വരിഞ്ഞിട്ട് കൊതുകളെ പെറ്റു പെരുകാറുണ്ട് നമ്മൾ ഒന്ന് നമ്മൾ നമ്മൾ ഇപ്പം പൊതുവേ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ കുറിച്ചിട്ട് നമ്മളിപ്പം ഒന്നും ചിന്തിക്കാറില്ല ഇപ്പം എന്തിനും മരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഒരു എന്താ പറയുക എന്ത് അസുഖത്തിനും മരുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പോകുന്നത് കാരണം ആ നമുക്കെന്തായാലും ഡോക്ടറെ കണ്ടാൽ അത് സ് ഭേദപ്പെടും അല്ലെങ്കിൽ അത് സുഖമാകും പെട്ടെന്ന് നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാം ആ ചിന്താഗതിയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് കാരണം നമ്മൾ നമ്മളുടെ ചുറ്റുപാടുകളും അല്ലെങ്കിൽ നമ്മൾ പോകുന്ന വഴികളൊക്കെ നമ്മൾ വഴികളിൽ അല്ലെങ്കിൽ ഈ വെള്ളം കെട്ടി നിന്നിട്ടെല്ലാം കണ്ടാൽ ഇപ്പം ചിരട്ടയിലെല്ലാം വെള്ളം കെട്ടി നിൽക്കാറുണ്ട് അതൊക്കെ കമഴ്ത്തി വെക്കുക നമ്മളുടെ വീടും പരിസരവും ശുചീകരിച്ച് ശുചീ ക്ലീനാക്കിയിട്ട് വെക്കുക വൃത്തിയാക്കിയിട്ട് വെക്കുക അതൊക്കെയാണ് ഒന്നാമതുള്ളത് പിന്നെ ഈ റോഡ് സൈഡിൽ നിന്നുള്ള പാനീയങ്ങൾ അമിതമായി ഉപയോഗിക്കാതിരിക്കുക പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നത് ഇപ്പം എല്ലാവരും കുപ്പിവെള്ളം ഉപയോഗിക്കുന്നു ഇപ്പം നമ്മൾ എവിടെ ഇപ്പം പുറത്ത് ഇപ്പം ട്രെയിനിലായാലും അല്ലെങ്കിൽ പുറത്തെവിടെയെങ്കിലും ദൂര നമ്മൾ എവിടെയെങ്കിലും ദൂര എവിടെയെങ്കിലും സഞ്ചരിക്കുകയാണെങ്കിൽ ഇപ്പം കണ്ടു വരുന്നത് പൊതുവേ നമ്മൾ വീട്ടിൽ നിന്നു വെള്ളം കൊണ്ടു പോകാറില്ല കാറില്ല ഇപ്പം ആരും എല്ലാവരും മിനറൽ വാട്ടറാണ് മേടിച്ചു കുടി കുടിക്കാറ് കുപ്പിവെള്ളം അത് നമുക്ക് എങ്ങനത്തെ സാഹചര്യത്തിലാണ് അല്ലെങ്കിൽ ഏതു രീതിയിലാണ് അവർ കുപ്പിയിലാക്കി തരുന്നതെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകില്ല കാണുമ്പോൾ നല്ല ക്ലിയറാണ് വെള്ളം കാരണമത് ശുചീകരിച്ചിട്ടുണ്ടോ അതിനുവേണ്ടിയിട്ടുള്ള എല്ലാം ഘട്ടം ഘട്ടങ്ങളാക്കിയിട്ടുള്ള ശുചീകരണം കഴിഞ്ഞിട്ടാണോ നമ്മളുടെ കയ്യിൽ കിട്ടുന്നത് എന്നുള്ള ഒരറിവൊന്നും നമ്മൾക്കില്ല നമ്മൾ വാങ്ങിക്കുന്നു കുടിക്കുന്നു അത് നല്ലതാണൊ എന്നൊന്നും നമ്മ ചിന്തിക്കുന്നില്ല കാരണം നമ്മൾ ഇപ്പോഴത്തുള്ള എല്ലാവരുടെയും ചിന്തയെന്നു പറഞ്ഞെങ്കിൽ കുപ്പിവെള്ളം ഏറ്റവും ശുദ്ധമായ വെള്ളം എന്നാണ് കാരണം അതല്ല കുപ്പിവെള്ളത്തിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാദ്ധ്യതയുണ്ട് കാരണം കുറേ സമയം ഈ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് പ്ലാസ്റ്റിക് നമ്മളുടെ ഭൂമിയിൽ അലിയാത്തൊരു സാധനം അതെത്ര കൊല്ലം കഴിഞ്ഞാലും അതങ്ങനെ ഉണ്ടാകും പ്ലാസ്റ്റിക് ആ പ്ലാസ്റ്റിക്കിലാണ് വെള്ളം കൂട്ടിയിട്ട് വെക്കുന്നത് അതെത്ര സമയം വരെ നിന്നാൽ കുറേ സമയം ഇങ്ങന്നെ മൂടടപ്പും വെച്ചിട്ട് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മളെ നമ്മൾ തന്നെ കുറച്ച് ഒരു കുറച്ചു സമയത്തേക്ക് വെള്ളം ബോട്ടിൽ ഇത് കുപ്പിയിലാക്കിയിട്ട് നിറച്ചു വെച്ചിട്ട് കുറച്ച് കുറേ ദിവസം വെച്ചിട്ട് അതൊന്ന് ഓപ്പണാക്കി നോക്കിയാൽ അതിൻ്റെ വ്യത്യാസമറിയാം അതുപോലെ തന്നെയാണ് മിനറൽ വാട്ടറും നമ്മളുടെ ആരോഗ്യത്തിന് ഒട്ടും ചേരാത്തൊരു കാര്യമാണ് ഈ മിനറൽ വെള്ളം അത് വഴി നമുക്ക് അസുഖങ്ങൾ പകരാനുള്ള സാദ്ധ്യതയുണ്ട് കാരണം അത് പ്യൂരിഫൈ ആയൊ എന്ന് നമുക്കറിയില്ല അതെല്ലാ രീതിയിലും നമുക്ക് അതിന്റുള്ള അതിനുള്ള മാനദണ്ഡങ്ങളും അതിനുള്ള ശുചീകരണ കാര്യങ്ങളും ചെയ്തിട്ടാണ് നമ്മളുടെ കയ്യിലേക്ക് കിട്ടുന്നതെന്നു നമുക്കറിയില്ല അതും കൂടി ഒരു വാസ്തവമായ കാര്യമാണ് അതുവഴി നമുക്ക് ചിലപ്പോൾ അത് നമുക്ക് കാണുമ്പോൾ നല്ല ക്ലിയറുണ്ടാകും പക്ഷെ അതിലുള്ള അണുക്കൾ വഴി നമുക്ക് പകർച്ചവ്യാധികൾ വരാനുള്ള സാദ്ധ്യതയുണ്ട് പിന്നെ എലിപ്പനി ഡെങ്കി മലേറിയ ഇതൊക്കെ ഇപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടു വരുന്ന പണ്ടൊക്കെ ഇല്ലാത്തത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടു വരുന്നതാണ് എലിപ്പനി ഡെങ്കിപ്പനി മലേറിയ എന്നിവയുള്ളതെല്ലാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് കുട്ടികളിലും കൂടു കുട്ടികളിലും വയസ്സായവരിലുമാണ് ഇപ്പം കാണുന്നത് പിന്നെ ആ കുട്ടികൾ ഇപ്പോഴത്തെ കുട്ടികളിൽ കാണുന്ന കുറേത്തിലുള്ള ആരോഗ്യത്തിൻ്റെ പ്രശ്നമാണ് ആരോഗ്യപ്രശ്നത്തിനു കാരണമായത് ഒന്നാണ് ജംഗ്സ് ഫുഡ് ഇപ്പോഴത്തെ കുട്ടികൾക്ക് വീട്ടിലുള്ള ആഹാരങ്ങളൊന്നും അല്ല വേണ്ടത് പുറത്തു നിന്നുള്ള സാധനങ്ങളാണ് വേണ്ടത് ഇപ്പം ബാർബിക്യു പാസ്ത മക്രോണി ബർഗർ മോമോസ് അൽഫാം പിന്നെ തുടങ്ങിയ ജംഗ്സ് ഫുഡ്ഡുകളാണ് കുട്ടികൾക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയം കൂടിക്കൊണ്ടു വരുന്നത് വീട്ടിലുള്ള അപ്പവും ചോറുമല്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ടത് ഇപ്പോൾ പുറത്തുള്ള ഹോട്ടൽ ഫുഡിനോട് താത്പര്യമുണ്ട് അതാണ് ഒന്നാമതുള്ള ആരോഗ്യപ്രശ്നത്തിന് കാരണമാണ് ഈ ഹോട്ടൽ ഫുഡ്ഡുകൾ ഒന്നാമത് ഈ ജംഗ്സ് ഫുഡ്ഡുകൾ കാരണം ആ നമുക്കെന്നു വെച്ചാൽ ഈ ജംഗ്സ് ഫുഡ്ഡുകൾ ചില രാസവസ്തുക്കൾ നമ്മുടെ ശരീരത്തിനു പറ്റാത്ത കുറേ തരം രാസവസ്തുക്കൾ അതിലുണ്ട് അത് നമ്മുടെ ശരീരത്തിന് താങ്ങുന്നതിനും അപ്പുറമായിരിക്കും ആ രാസവസ്തുക്കൾ നമ്മൾക്ക് താങ്ങാനാകാതെ വരുമ്പോഴാണ് നമുക്ക് അപ്പെൻഡിക്സ് അൾസർ പോലെയുള്ള പിന്നെ കുറേ ആരോഗ്യപ്രശ്നങ്ങൾ നമുക്ക് ഈ ആഹാരം വഴി തന്നെ ഉണ്ടാകാനുണ്ട് ഇപ്പോഴത്തെ കുട്ടികൾ കാണാം രാവിലത്തെ ചായക്ക് പകരം ഇപ്പം മാഗ്ഗി അങ്ങനെ കഴിക്കുന്നത് അതിലൂടെയും നമുക്ക് വയറു മോശമാകാനുള്ള സാദ്ധ്യതയുണ്ട് മോഷൻ ഇഫക്റ്റ് ആകാറുണ്ട് നമുക്കുള്ള പല രീതിയിലുള്ള വയറു വേദന ഇപ്പോഴത്തെ കുട്ടികൾക്ക് കണ്ടുവരുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ ഒന്നാണ് വയറു വേദന പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികളിൽ കാരണം രാവിലെ അവരൊക്കെ കഴിച്ചിട്ട് പോകുന്ന അപ്പത്തിനു പകരം മാഗിയും പിന്നെ ജംഗ്സ് ഫുഡൊക്കെയാണ് കഴിച്ചു വരുന്നത് ജംഗ്സ് ഫുഡ് അന്ന് കൊണ്ടു വന്നാലും അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉണ്ടെങ്കിൽ പിറ്റേ ദിവസം ചൂടാക്കി കൊടുക്കും അതൊക്കെ ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമായിരുന്നതും കൂടിയാണ് ജംഗ്സ് ഫുഡ്ഡുകളൊക്കെ കഴിക്കുന്നത് അതുവഴി നമുക്ക് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകും കാരണം അവരുണ്ടാക്കുന്ന സാഹചര്യം അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന രീതിയൊന്നും നമുക്ക് കാണുന്നില്ല കാരണം ചിലപ്പോൾ അവർ നല്ല വെള്ളത്തിലാണോ എണ്ണയായാലും എന്തായാലും അത് ഉപയോഗിക്കുന്തോറും നല്ലതാണോയെന്നു കൂടി നമുക്കറിയില്ല കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോഴാണ് ആ സാധനം ടേസ്റ്റി ആണ് അപ്പോൾ അതിനെപ്പറ്റിയിട്ട് നമുക്ക് ബാക്കിയൊന്നും അറിയണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഉള്ളത് കാരണം അവർ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വെള്ളം ക്ലീനുണ്ടോ അല്ലെങ്കിൽ ശുചീകരിച്ചതാണോ അങ്ങനത്തൊന്നും നമുക്കറിയുന്നില്ല കാരണം അതുവഴിയൊക്കെ നിരവധി ആരോഗ്യപ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അല്ല നേരിടേണ്ടി വരുന്നുണ്ട് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വെള്ളത്തിലൂടെയാണ് ഇപ്പോൾ നമുക്ക് പകർച്ചവ്യാധികൾ വരുന്നത് കാരണം പ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെള്ളം വെള്ളത്തിൽ അതു നമുക്ക് അറിയാൻ പറ്റില്ല കാരണം വെള്ളത്തിൽ അത് കുറേ തരം കൃമികളൊക്കെ ഉണ്ടാകും അതുതന്നെയായിരിക്കും എല്ലാം ഉണ്ടാക്കിയിട്ടൊക്കെ തരുന്നത് അതുവഴി നമുക്ക് ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകാം എല്ലാം ആ കഴിഞ്ഞതിനു ശേഷം എല്ലാം ഇതായതിനു ശേഷം അറിഞ്ഞിട്ട് നമുക്കൊരു കാര്യവുമില്ല കാരണം അപ്പോഴത്തേക്കും ആകുമ്പം നമ്മളുടെ ജീവൻ ചിലപ്പോൾ ആപത്ത് സംഭവിച്ചേക്കാം ആ ആരോഗ്യ പ്രശ്നം കാരണം നമ്മുടെ അശ്രദ്ധ മൂലം നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് ഒന്നുകിൽ പകർച്ചവ്യാധികൾ ഉണ്ടാകാറുണ്ട് പിന്നെ ഇത് പകർച്ചവ്യാ ഇത് പോഷകാഹാരക്കുറവ് ഇത് ഇപ്പം കുട്ടികളിലും കണ്ടുവരുന്ന ഏറ്റവും കൂടുതൽ പോഷകാഹാര കുറവ് കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് പച്ചക്കറികൾ വേണ്ട ഫ്രൂട്സ് വേണ്ട അവർക്ക് വേണ്ടത് ഈ ഹോട്ടൽ സാധനങ്ങളാണ് അല്ലെങ്കിൽ ജ്യൂസാണ് അല്ലെങ്കിൽ ഇത് കുപ്പി ശീതളപാനീയങ്ങളാണ് അവർക്കിപ്പോൾ വേണ്ടത് ഇപ്പോൾ വെള്ളമോ അല്ലെങ്കിൽ പാലോ തൈരോ മോരോ അങ്ങനത്തൊന്നും സാധനങ്ങൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് വേണ്ട അതൊക്കെ പോഷകങ്ങളെല്ലാം അടങ്ങിയ ഒരു ധാതുക്കളുടെ കലവറയാണ് ഈ പച്ചക്കറികളും ധാതുക്കളും പിന്നെ ഇലക്കറികൾ പയറുവർഗ്ഗങ്ങൾ പിന്നെ ഈ മോര് തൈര് വെണ്ണ ഇതൊക്കെ ഉള്ളത് നമ്മുടെ ആരോഗ്യത്തിനു വേണ്ട നല്ല പോഷകങ്ങൾ തരുന്ന ഘടകങ്ങളാണ് ഇവയൊക്കെ പച്ചക്കറികളെല്ലാം പക്ഷെ ആ അതിൻ്റെ അളവ് കുറയുമ്പോഴാണ് കുട്ടികൾക്ക് പോഷകാഹാരം അല്ലെങ്കിൽ പോഷകാഹാരക്കുറവ് കാണുന്നത് അതുവഴി തന്നെ കുട്ടികൾക്ക് കാൽസ്യത്തിൻ്റെ കുറവുണ്ടാകാം രക്തക്കുറവ് ഇപ്പോഴത്തെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒന്നാണ് രക്തക്കുറവും പോഷകാഹാരക്കുറവും അതുവഴി കുട്ടികളുടെ മുഖത്ത് വെള്ളനിറത്തിലുള്ള പാടുകളൊക്കെ വരുന്നത് വിറ്റാമിൻ കാരണം അതൊക്കെ ഈ പച്ചക്കറികൾ അതൊക്കെ ഈ പച്ചക്കറികൾ കഴിക്കാത്തത് കൊണ്ടാണ് പച്ചക്കറികൾ മാത്രമല്ല മാംസം മാംസം മത്സ്യം ഇതൊക്കെ നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള ഘടകങ്ങളാണ് അതൊക്കെ ഒന്നും ഇപ്പോൾ ആരും കഴിക്കാറില്ല അതൊക്കെ പോഷകാഹാരക്കുറവിന് കാര്യങ്ങളാണ് പിന്നെ ഈ സമീകൃത രോഗങ്ങൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരിടേണ്ടുന്ന ഒന്നാണ് ഈ പകർച്ചവ്യാധികൾ കാരണം നമ്മളുടെ ജീവിതശൈലിയിൽ നിന്നും വരാം ജീവിതശൈലിയിൽ നിന്നും വരാം നമ്മളുടെ സാഹചര്യങ്ങളിൽ നിന്നും വരാം നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും വരാം എല്ലാ രീതിയിൽ നിന്നും നമുക്ക് വരാറുണ്ട് പക്ഷെ നമ്മളത് മാക്സ് നമ്മൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മളത് വരാം നമുക്ക് വരാതിരിക്കാനായി നമുക്ക് ശ്രമിക്കാം